സർക്കാർ നടത്തുന്ന പദ്ധതികൾ കേന്ദ്രസംസ്ഥാന സര്ക്കാറുകളും ഒന്നിച്ചും വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് ഒട്ടനവധികള് പദ്ധതികൾ ജനക്ഷേമത്തിനായിട്ട് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് അതിനെ പറ്റി പറയുകയാണെങ്കില് ഒത്തിരി അധികം പദ്ധതികളുണ്ട് അതായത് ഏറ്റവും പ്രധാനമായിട്ട് കേന്ദ്ര സര്ക്കാരും സംസ്ഥാന സര്ക്കാരും ഒന്നിച്ചു ചേര്ന്ന് നടത്തുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി നാഷണല് റൂറല് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്റ്റ് അതായത് തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സമൂഹത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നില്ക്കുന്ന ആള്ക്കാര്ക്ക് മിനിമം ഒരു നൂറ് ദിവസത്തെയെങ്കിലും തൊഴിൽ ഉറപ്പു വരുത്തുന്ന പദ്ധതിയാണ് നാഷണല് റൂറല് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി അല്ലെങ്കിൽ പദ്ധതി അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി ഇതിലൂടെ നമ്മുടെ നാട്ടിൽ ഒത്തിരി അനേകം ഒത്തിരി ആള്ക്കാര്ക്ക് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് അതിൽ ആ പദ്ധതിയിൽ ഒരു ഓരോ ഗുണഭോക്താക്കളും ഒരു തൊഴിലുറപ്പ് കാര്ഡ് ഉണ്ടാക്കിയതിന് ശേഷം അവരെ ആ മസ്റോളില് ആഡ് ചെയ്തു സംസ്ഥാനത്ത് ആണെങ്കില് പഞ്ചായത്ത് തലത്തില് ഓരോ പദ്ധതികൾ ആവിഷ്കരിച്ച് ആ അവര്ക്ക് തൊഴിൽ കൊടുക്കുക തൊഴിൽ എന്നിട്ട് അതിന് ഗവണ്മെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു വേതനം കിട്ടുക എന്നുള്ളതാണ് ഇത് ഒത്തിരി അധികം സാമ്പത്തികമായിട്ട് പിന്നോക്കം നില്ക്കുന്ന ആള്ക്കാര്ക്ക് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയിലൂടെ നല്ല രീതിയില് പണം ആൾക്കാരിൽ എത്തുകയും അത് മാര്ക്കറ്റില് വിനിയോഗിച്ച് അത് മുഖേന അതായത് നമ്മളുടെ വാണിജ്യ വ്യവസായത്തിനെ ഒത്തിരി ഉണര്ത്താനായിട്ട് ഉപകാരം ചെയ്യും അതേസമയം തന്നെ സാമ്പത്തികമായി പിന്നോക്കം നില്ക്കുന്ന ആള്ക്കാര്ക്ക് ഒത്തിരി പ്രയോജനപ്പെടും മാത്രമല്ല പല ഏരിയകളിലും നമ്മുടെ പൊതുനിരത്തുകൾ അല്ലെങ്കില് പൊതു സ്ഥലങ്ങളൊക്കെ വൃത്തിഹീനമായി കിടക്കുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏര്പ്പെടുത്തി വൃത്തിയാക്കി അത് വന് വൃത്തിയായിട്ടു സൂക്ഷിക്കാനായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി ഒത്തിരി ഉപകാരപ്പെടുന്നുണ്ട് ഒത്തിരി അധികം ആള്ക്കാർ ജോലി ഇല്ലാതെ അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാന് സാധിക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ആള്ക്കാരൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിയില് ജോയിന് ചെയ്തു അവർ കി ട്ടുന്ന തൊഴിലുകള് ചെയ്യുന്നതായിട്ട് ഒത്തിരി ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ട് വളരെ മനുഷ്യർക്ക് ജനങ്ങള്ക്ക് ഉപകാരപ്പെടുന്നതായ ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി അത് കേരളത്തിലാണെങ്കിൽ വളരെ ഭംഗിയായി അത് നടത്തുകയും ഏതാണ്ട് നൂറോളം തന്നെ തൊഴിൽ എല്ലാവര്ക്കും ലഭിച്ചു അതിന്റെ വേതനം ലഭിക്കുകയും പ്രയോജനപ്പെടുകയും ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ നല്ല ഒരു പദ്ധതിയാണ് പിന്നെ വേറെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാല് ഭവന നിര്മ്മാണമാണ് അത് കേന്ദ്രസര്ക്കാർ ഭവനനിര്മ്മാണ പദ്ധതി അതായത് സാമ്പത്തികമായി പിന്നോക്കം നില്ക്കുന്ന ആള്ക്കാര്ക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവര്ക്ക് ഭൂമിയുള്ളവര്ക്ക് ഒരു തുക കേന്ദ്രസര്ക്കാർ അനുവധിക്കുകയും അതിനോടു കൂടി സംസ്ഥാന സര്ക്കാരോട് പൈസ അതില് ഈ ആഡ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ കൂടെ ചേര്ത്ത് ഭവനം നിര്മ്മിച്ചു കൊടുക്കുന്നുണ്ട് അത് കേന്ദ്ര പ്രൈം പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്നാണ് കേന്ദ്ര സര്ക്കാരിന്റെ പദ്ധതി അത് കേരളത്തിൽ ലൈഫ് എന്ന് ലൈവ് ഇന് ക്ലൂഷൻ ഓഫ് ഫണ്ട് എന്ഹാന്സ്മെന്റ് എന്നുള്ള പദ്ധതിയിലാണ് അതു ഉള്പ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് നാല് ലക്ഷം രൂപയോളോം മുടക്കി ഭവനരഹിതരായ ആള്ക്കാരെ കണ്ടെത്തി തദ്ദേശം അതായത് പഞ്ചായത്തുകളില് നിന്ന് വരുന്ന ആപ്ലിക്കേഷന് അര്ഹതപ്പെട്ടവരെ കണ്ടെത്തി അത് സ്ക്രൂട്ടനി ചെയ്തു അര്ഹതപ്പെട്ടവര്ക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയാണ് ഭവന നിര്മ്മാണ പദ്ധതി ആ പദ്ധതി അനുസരിച്ച് ഒത്തിരി ഭവനരഹിതരായ ആള്ക്കാര്ക്ക് സഹായിക്കുകയും അവര്ക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് കിട്ടാനുള്ള ഒത്തിരി കാല ഒരു സാധ്യത തുറന്ന് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അത് അത് വളരെ ഭംഗിയായിട്ട് കേരളാ സംസ്ഥാന ഗവണ്മെൻ്റും കേന്ദ്ര ഗവണ്മെൻ്റും ചേര്ന്ന് ഒന്നിച്ച് അത് നടത്തുന്നുണ്ട് പിന്നെ അടുത്തതായിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ മുദ്ര ലോൺ ആണ് അതായത് പല അഭ്യസ്ഥവിദ്യരായ ആള്ക്കാര്ക്ക് വിദ്യാഭ്യാസമുണ്ട് പക്ഷെ ജോലി ലഭിച്ചിട്ടില്ലാത്തവര് എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അവര്ക്ക് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ആ സംരഭം തുടങ്ങാന് സാധിക്കാത്തവര്ക്ക് ബാങ്കില് നിന്ന് കൊടുക്കുന്ന ഒരു ലോൺ ആണ് മുദ്രാ ലോണ് അത് നമ്മൾ ഏത് സംരംഭത്തിനാണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അതിന് ആവശ്യമായ പണം എന്താണെന്നുള്ള രീതിയില് നമ്മള് നന്നായിട്ട് ഒരു റിപ്പോര്ട്ട് തയ്യാറാക്കി ബാങ്കിനെ സമീപിച്ചു കഴിഞ്ഞാല് ബാങ്കില് നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ഒരു ലോണാണ് ഒരു സാമ്പത്തിക വായ്പയാണ് മുദ്രാ ലോണ് അത് കേന്ദ്രഗവണ്മെന്റിന്റെ ഒരു പദ്ധതിയാണ് സൗജന്യ റേഷന് പദ്ധതി അതായാത് പൊതുവിതരണ നമ്മുടെ പൊതുവിതരണ കേന്ദ്രത്തിലൂടെ ആള്ക്കാരെ ബി പി എൽ എ പി എൽ എന്ന് തരം തിരിച്ചിട്ട് ബി പി എൽ ബിലോ പോവര്ട്ടി ലൈനിലുള്ള ആ ആള്ക്കാര്ക്ക് സൗജന്യമായിട്ട് റേഷന് കൊടുക്കുന്ന പദ്ധതികൾ ഗവണ്മെന്റ് നടത്തുന്നുണ്ട് പിന്നെ ഒരു നിയന്ത്രിച്ചത് അത് അതായത് കൺട്രോൾഡ് റേറ്റിലും ആള്ക്കാര്ക്ക് റേഷന് കൊടുക്കുന്ന പദ്ധതികളുണ്ട് അപ്പം സൗജന്യ റേഷന് പദ്ധതിയുണ്ട് അത് നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിതരണ കേന്ദ്രവുമായി യോജിച്ച് കൊണ്ട് നടത്തുന്ന പദ്ധതിയാണ് സൗജന്യ റേഷൻ പദ്ധതി അത് ആള്ക്കാര്ക്ക് ഒത്തിരിയേറെ അതായത് പാവപ്പെട്ട ആള്ക്കാര്ക്ക് അതായത് സാമ്പത്തികമായി പിന്നോട്ട് നില്ക്കുന്ന ആള്ക്കാര്ക്ക് അന്നന്നെ ഇടം കഴിഞ്ഞു പോവാന് മാര്ഗമില്ലാത്ത ആള്ക്കാര്ക്ക് വളരെ അധികം പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് സൗജന്യ റേഷന് പദ്ധതി പിന്നെ അടുത്ത ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ മിഡ്ഡേ മീലെന്ന് പറയും അതായത് പല കുട്ടികളും ഭക്ഷണം ഇല്ല ആ ഭക്ഷണം കണ്ടെത്താന് വേണ്ടിയിട്ട് സ്കൂളില് വരാന് പറ്റാതെ അതല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തില് നിന്ന് പിന്തിരിക്കപ്പെടുന്ന അല്ലേല് വിദ്യാഭ്യാസത്തിന് എത്താന് പറ്റാത്ത ആള്ക്കാരുണ്ട് അങ്ങനെയുള്ള ആള്ക്കാരെ സ്കൂളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് മിഡ്ഡേ മീല് അപ്പം അത് സര്ക്കാർ എയിഡഡ് സ്കൂളുകളിലും അല്ലെ ഗവണ്മെന്റ് നടത്തുന്ന സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കുഞ്ഞ് കുട്ടികള്ക്ക് ഉച്ച ഭക്ഷണം നല്കുന്ന ഒരു പദ്ധതിയാണ് അതുകൊണ്ട് ഒത്തിരി അധികം കുട്ടികൾ സ്കൂളില് വരാതെ സ്കൂള് ഡ്രോപ്പായി നടന്നിരുന്ന കുട്ടികളെ സ്കൂളിലെത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് വളരെ ഭംഗിയായിട്ട് നടത്തുകയും കുട്ടികള്ക്ക് ഒന്നിച്ച് എല്ലാവരും ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പം കുട്ടികളിൽ കൂടുതല് സൗഹൃദവും ഒരു ഒത്തൊരുമയും ഒരു സമത്വത്തിന്റെ ഒരു ഒരു ഒരു അനുഭവം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് മിഡ്ഡേ മീല് അതും വളരെ നല്ല ഒരു പദ്ധതിയാണ് പിന്നെ അടുത്തത് സാമൂഹിക പെന്ഷനുകളാണ് സാമൂഹിക പെന്ഷനുകൾ വാര്ദ്ധക്യകാല പെന്ഷന് വിധവാ പെന്ഷന് അങ്ങനെ ഉണ്ട് അത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആള്ക്കാര്ക്ക് അവരുടെ ഒരു നിശ്ചിത വരുമാനത്തില് കുറവുള്ള ആള്ക്കാര്ക്ക് മാസം നല്കുന്ന ഒരു പെന്ഷനാണ് സാമൂഹിക പെന്ഷന് അതില്നിന്നും വാര്ദ്ധക്യകാലത്തിലേക്ക് എത്താൻ അറുപത് വയസ്സ് കഴിയുന്നവര്ക്ക് സ്വന്തമായി ആവിശ്യങ്ങള്ക്ക് പണം കണ്ടെത്താനോ പോയി തൊഴിൽ ചെയ്യാനോ എന്തെങ്കിലും ജോലി ചെയ്യാനോ സാധിക്കാത്ത ആള്ക്കാര്ക്ക് ഒരു സഹായിക്കുക സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഗവണ്മെന്റ് നടത്തിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് സാമൂഹിക പെന്ഷന് അത് കേരളത്തിൽ ഏതാണ്ട് ആയിരത്തി അറുനൂറ് രൂപയോളം മാസം പെന്ഷനായി നല്കുന്നുണ്ട് അത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആള്ക്കാര്ക്ക് ഒരു നിശ്ചിത വരുമാനത്തില് താഴെ നിശ്ചിത തുകയില് താഴെ മാത്രം വരുമാനമുള്ള ആൾക്കാർക്ക് ആയിട്ട് ഈ സാമൂഹിക പെന്ഷന് നടത്തുന്നുണ്ട് ഒപ്പം വിധവകളായ ആള്ക്കാര്ക്ക് വിധവകളായവര്ക്ക് വിധവകൾ അറുപത് വിധവകളാണ് അതായത് ജീവിതപങ്കാളി നഷ്ടപ്പെട്ടു അവിടെ അന്നന്ന് അപ്പം കണ്ടെത്താനായിട്ട് ആളില്ലാത്ത ആള്ക്കാര്ക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുക അവരെ സമൂഹത്തില് മെയിന് സ്ട്രീമിലേക്ക് കൊണ്ടുവരുക എന്നൊള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടു വന്നിരിക്കുന്നതാണ് വിധവാപെന്ഷന് അതുമൊത്തിരിയധികം ആള്ക്കാര്ക്ക് പ്രയോജനപ്പെടുന്നു പിന്നെ ക്ഷേമനിധി പെന്ഷനുകളും ഒണ്ട് ക്ഷേമനിധി കര്ഷക തൊഴിലാളികള് നിര്മ്മാണ തൊഴിലാളികള്ക്ക് ഒക്കെ അല്ലെ ഓട്ടോ തൊഴിലാളികള്ക്ക് ഒക്കെ ഒരു മിനിമം ഒരു മാസ മാസത്തിൽ ഒരു തുക അവരില് നിന്ന് ശേഖരിച്ചതിന് ശേഷം അവര്ക്ക് ഒരു പിരീഡിന് ശേഷം കൊടുക്കുന്ന ഒരു കാലാവധിക്ക് ശേഷം കൊടുക്കുന്ന ഒരു പെന്ഷനാണ് ക്ഷേമനിധി പെന്ഷന് അത് ക്ഷേമനിധി പെന്ഷന് കര്ഷക തൊഴിലാളികള്ക്ക് കിട്ടുന്നൊണ്ട് ഓട്ടോ തൊഴിലാളികള്ക്ക് കിട്ടും തയ്യല് തൊഴിലാളികള്ക്ക് കിട്ടുന്നൊണ്ട് നിര്മ്മാണ തൊഴിലാളികള്ക്കുണ്ട് ഇവര്ക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുകയും വളരെ അധികം ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് ക്ഷേമനിധി പെന്ഷന് മൃഗസംരക്ഷണ പദ്ധതി ഗവണ്മെന്റ് നടപ്പാക്കുന്നുണ്ട് മൃഗസംരക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് കന്നുകാലി വളര്ത്തല് കന്നുകാലി വളര്ത്തൽ ആട് പശു എരുമ ഇതിനെ വളര്ത്തി അതില് നിന്ന് ഒരു വരുമാനം കണ്ടെത്തുക ഒപ്പം പാലിന്റെയും മുട്ടയുടെയും ഒക്കെ അവിശ്യങ്ങൾ നമ്മളുടെ സമൂഹത്തിലുണ്ടാകുന്ന അല്ലേല് നമ്മുടെ സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന ആവിശ്യങ്ങൾ നമ്മൾ സ്വയം പ്രാപ്തരാകാന് വേണ്ടിയിട്ട് പ്രാപ്തരാകാന് വേണ്ടിയിട്ടും കൂടെ ഒന്നും പ്രാപ്തരാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും കൂടെയാണ് ഈ മൃഗസംരക്ഷണ പദ്ധതി നടപ്പാക്കുന്നത് അതിൽ താല്പ്പര്യമുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നില്ക്കുന്ന അര്ഹരായപ്പെട്ട ആള്ക്കാരെ തദ്ദേശ എന്തോന്നില് പഞ്ചായത്ത് വകുപ്പ് വാര്ഡ് തലങ്ങളില് കണ്ടെത്തി അവര്ക്ക് കോഴി വളര്ത്തുന്ന ആൾക്കാർ കോഴി സൗജന്യമായി നല്കുക അല്ലേല് ഒരു നിശ്ചിത തുകയ്ക്ക് നല്കുക അവർക്ക് കോഴിക്കൂട് കൊടുക്കുക അല്ലെങ്കിൽ കോഴിക്കൂട് തൊഴുത്തിനെ പണിയാനുള്ള തുക കൈയിൽ സബ്സീഡി നല്കുക അപ്പോൾ ഒപ്പം ഈ കന്നുകാലി വളര്ത്തലാണെന്നുണ്ടെങ്കിൽ പശുക്കിടാക്കൾ അല്ലെങ്കില് പോത്തു കിടാക്കൾ എരുമ കിടാക്കളെ കുറച്ചു ആള് സൗജന്യമായി നല്കുക അല്ലേ സ്വരൂ നിശ്ചിത തുക വാങ്ങിക്കൊണ്ടു നല്കുക പിന്നെ തൊഴുത്ത് പണിയാനായിട്ട് അവര്ക്ക് സബ്സീഡി തൊഴുത്ത് പണിയാനാകുന്ന തുകയുടെ സബ്സിഡി ചില കേസുകളിൽ പൂര്ണ്ണമായി തൊഴുത്ത് പണിയാനുള്ള തുകയും ഗവണ്മെന്റ് സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് മൃഗസംരക്ഷണ പദ്ധതി ഇതില് നിന്ന് ഒത്തിരി അധികം ആള്ക്കാര്ക്ക് തൊഴിൽ കണ്ടെത്താനും ഒപ്പം പാലിന്റെ മുട്ടയുടെ ആവിശ്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തു ള്ള ആവിശ്യങ്ങള്ക്ക് നമ്മള് സ്വയം പര്യാപ്തരാകാനുവായിട്ട് സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് മൃഗസംരക്ഷണ പദ്ധതി മൃഗസംരക്ഷണ പദ്ധതിയിലൂടെ നമ്മൾക്ക് പാൽ നന്നായിട്ട് ഉദ്പാദിപ്പിച്ച് സംസ്ഥാനത്തിനെ ഏറ്റവും കൂടുതല് പാൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളില് രണ്ടോ മുന്നോ നിലയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒപ്പം പിന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഗവണ്മെന്റ് സൗജന്യമായിട്ട് ഇപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നില്ക്കുന്ന കുട്ടികള്ക്ക് സ്കോളര്ഷിപ്പായിട്ടും എജുക്കേഷന് വിദ്യാഭ്യാസം സൗജന്യമായിട്ടും ഒക്കെ നല്കുന്നുണ്ട് പാഠപുസ്തകങ്ങള് സൗജന്യമായിട്ട് നല്കുന്നുണ്ട് യൂണിഫോം സൗജന്യമായിട്ട് നല്കുന്നുണ്ട് ഒപ്പം ഇത് തന്നെ വിദ്യാഭ്യാസത്തില് വരുന്നതാണ് മിഡ്ഡേ മീല് സെന്ട്രല് ഗവണ്മെന്റ് കേന്ദ്ര ഗവണ്മെന്റ് റൈറ്റ് റ്റു എജുക്കേഷന് എന്നുള്ള ഒരു ആക്റ്റ് തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എല്ലാവരെയും വിദ്യാഭ്യാസമ്പന്നരാക്കുക ആദ്യകാലങ്ങളില് സാക്ഷരതയെന്ന് പറഞ്ഞു മിനിമം ഒരാക്കി അപ്പം അതിന് ശേഷം എല്ലാവരേയും റൈറ്റ് റ്റു എജുക്കേഷന് ആക്റ്റ് കൊണ്ടു വന്നു എല്ലാവരും വിദ്യാസമ്പന്നരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഗവണ്മെന്റ് സാമ്പത്തികമായി പിന്നോക്കം നില്ക്കുന്ന ആള്ക്കാര്ക്ക് അല്ലെങ്കില് അര്ഹതപ്പെട്ട ആള്ക്കാരെ കണ്ടെത്തി അവര്ക്ക് സ്കോളര്ഷിപ്പ് ആയിട്ടും ബുക്സ് അല്ലെങ്കില് പാഠപുസ്തകങ്ങളും സൗജന്യമായിട്ടും യൂണിഫോം സൗജന്യമായിട്ടും അവരുടെ പ്രവേശനം സൗജന്യമായിട്ടും ഒക്കെ മറ്റെ പ്രൈമറി ലെവലിലും അല്ലെങ്കിൽ ഉന്നതവിദ്യാഭ്യാസത്തിന് വരെയെക്കെ കൊടുക്കുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികൾ വിദ്യാഭ്യാസം ത്തിനുള്ള പദ്ധതികളാണ് വേറെ ഒരു പദ്ധതി കേന്ദ്ര ഗവണ്മെന്റ് നടത്തുന്നതാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അതായത് പെണ്ണ് ഭ്രൂണഹത്യ അതായത് പെണ്കുട്ടി സ്ത്രീകളുടെ ഭ്രൂണത്തിന്റെ ഭ്രൂണഹത്യ കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പെൺകുട്ടികളെ എന്കറേജ് ചെയ്യാന് അല്ലേ അവരെ മുന് നിരയിലേക്ക് കൊണ്ടുവരാന് വേണ്ടിയിട്ട് കൊണ്ട് വന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാ അപ്പം ആ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി അനുസരിച്ച് പെണ്കുട്ടികള്ക്ക് ഒത്തിരി അധികം സ്കീമ്കള് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസത്തിനായിട്ടും ഒക്കെ കൃത്യം കേന്ദ്ര ഗവണ്മെന്റ് നടത്തുന്നുണ്ട് അതില് നിന്ന് ഒത്തിരി അധികം നമ്മളുടെ സ്ത്രീകള്ക്ക് വിദ്യാഭ്യാസത്തിലേക്കും തൊഴില് മേഖലകളിലും ഒക്കെ കൊണ്ടുരാനായിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ ആരോഗ്യസംരക്ഷണം അല്ലേ ആരോഗ്യ ഇന്ഷൊറന്സ് പദ്ധതി ഈ പദ്ധതിയിൽ ഗവണ്മെന്റ് നമ്മള്ക്ക് സൗജന്യ ചികിത്സ ഗവണ്മെന്റ് ഹോസ്പിറ്റലുകൾ കൂടാതെ മികച്ച ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റല്കളിൽ പോയി ആണെങ്കിലും അവിടുത്തെ ധനസഹായം അതായത് അതിനെ ഇൻഷൂറന്സില് കവറ് ചെയ്തു കൊടുക്കുന്ന ആയുഷ്മാന് പദ്ധതി കാരുണ്യ പദ്ധതി അങ്ങനെയുള്ള ഒത്തിരി ഗവണ്മെന്റ് ആ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പദ്ധതികൾ ഗവണ്മെന്റ് നടത്തുന്നുണ്ട് അതിന് വേണ്ടി പ്രാഥമിക ആരോഗ്യകേന്ദ്രങ്ങള് നടത്തുകയും പ്രാഥമിക കാര്യത്തില് ആയമാർ വന്നു ഓരോ വീടുകളില് കയറി ഓരോ ആളും കാണുന്ന രോഗങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ അവര്ക്ക് വേണ്ട ഉപദേശങ്ങള് നല്കുകയോ അവര്ക്ക് വേണ്ട മുന്കരുതൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ആരോഗ്യസംരക്ഷണ പദ്ധതി വേറെ ഒരു പദ്ധതി കേന്ദ്ര സര്ക്കാർ നടപ്പാക്കുന്നതാണ് കൗശല് വികാസ് പദ്ധതി അതായത് യുവജനങ്ങള്ക്ക് ഇടയിൽ വിദ്യ നേടിയതിന് ശേഷം തൊഴില് കണ്ടെത്താന് സാധിക്കാത്തത് കൊണ്ട് തൊഴിൽ കിട്ടാത്തത് കൊണ്ട് അവർ തൊഴിൽ ലഭിക്കുന്ന രീതിയിലേക്ക് അവരിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവര്ക്ക് അത് അതിൽ ആ ആ ആ സ്കില് ഡെവലപ്പ് ചെയ്ത് അതില് നിന്ന് തൊഴിൽ കണ്ടെത്താന് വേണ്ടിയിട്ടാണ് ഒരു തുടങ്ങിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് കൗശാല് വികാസ് കൗശാല് വികാസ് പദ്ധതി ഇതിൽ ഒത്തിരി അധികം ജോലിക്ക് ജോലി കിട്ടാന് സാധ്യതയുള്ള ജോബ് ഓറിയന്റഡ് കോഴ്സസ്കള് ഗവണ്മെന്റ് നടത്തുകയും അതിൽ അര്ഹതപ്പെട്ട കുട്ടികള്ക്ക് ആ കോഴ്സ് നടത്തി ആ ആ ആ ആ സ്കില് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകള് നടത്തി അവരെ ഡെവലപ്പ് ചെയ്ത് അവരെ ജോലി ചെയ്യാന് പ്രാപ്തരാക്കി എടുക്കുന്നത് അല്ലേ ജോലി ലഭിക്കാന് പ്രാപ്തരാക്കിയെടുക്കുന്ന പദ്ധതിയാണ് കൗശല് വികാസ് പദ്ധതി വേറെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ പട്ടയം കൊടുക്കുന്ന പദ്ധതി ഭൂമിരഹിതരായിട്ടുള്ള ആള്ക്കാര്ക്ക് അല്ലെങ്കില് വനമേഖളിൽ താമസിക്കുന്ന ആദിവാസികൾ ഒത്തിരി അധികമായിട്ട് താമസിക്കുന്നു പക്ഷെ അവര്ക്ക് അവർ ഭൂമി കൃഷി ചെയ്യുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ പേരിൽ അത് രജിസ്റ്റര് ചെയ്തു കിട്ടപ്പെട്ടതോ അവർ ഭൂമിയിൽ അവരുടെ പേരിലായി കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള പദ്ധതികള്ക്ക് വേണ്ടിയിട്ട് ഗവണ്മെന്റ് ചെക്ക് ചെയ്തു ഈ അര്ഹതപ്പെട്ട ആ ആള്ക്കാര്ക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നല്കുന്ന ഒരു പദ്ധതിയാണ് പട്ടയ പദ്ധതി അതായത് ഭൂമിയുടെ പട്ടയം ആ ഭൂമി ഉടമയ്ക്ക് വര്ഷങ്ങളായിട്ട് അവർ കൈവശാകവകാശമുള്ള ആള്ക്കാര്ക്ക് നല്കുന്ന പദ്ധതിയാണ് പട്ടയ പദ്ധതി